ഹലോ ഹലോ അതെ ആ ഓക്കെ എവിടെനിന്നാണ് വിളിക്കുന്നത് ഓക്കെ ഓക്കെ ഏതായിരുന്നു സെറ്റ് ഉദ്ദേശിക്കുന്നത് ഫോൺ ഓക്കെ പതിനയ്യായിരം റേഞ്ചിൽ വരുന്ന ഫോൺ നമുക്കൊരുപാട് ബ്രാൻഡ് വരുന്നുണ്ട് ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എം ഐ ആണോ റിയൽമി ആണോ സാംസങ്ങ് അങ്ങനെ സാംസങ്ങ് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരു ഈയൊരു പതിനഞ്ചായിരം റേഞ്ച് ആവുമ്പോൾ സാംസങ്ങിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ വല്ല എം ഐയോ വിവോയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം അറിയാമല്ലോ നമുക്ക് സാംസങ്ങ് കുറച്ചും കൂടി പ്രൈസ് കൂടിയ ഫോണായിരിക്കും ബെറ്റർ ഏഹ് അപ്പോൾ അല്ല ഓ ഇ എം ഐ ഓപ്ഷനുണ്ട് ഇ എം ഐ നമുക്ക് ആറ് മാസത്തേക്ക് വരുന്നുണ്ട് പിന്നെ പന്ത് ഒരു വർഷത്തേക്ക് വരുന്നുണ്ട് ഇരുപത്തിനാല് മാസത്തേക്ക് വരുന്നുണ്ട് വിത്തൗട്ട് സീറോ ഇന്ററെസ്റ്റാണ് ഇപ്പം ഉള്ളത് ഓക്കെ ആ കുഴപ്പമില്ലല്ലേ അങ്ങനെയാണെങ്കിൽ സാംസങ്ങിൻ്റെ അത്യാവശ്യം ഒരു നമുക്കൊരു തേർട്ടി കേയ്ക്ക് മുകളിലേക്കുള്ള ഫോണൊക്കെയില്ലേ അതൊക്കെ വിത്തൗട്ട് സീറോ പെർസന്റേജ് ഇന്ററെസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പൈസ പോലും തരേണ്ട ഫസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ ആ സീറോ ക്യാഷിൽ നമ്മൾ ഫോൺ തരും പിന്നെ ഫോണിനിപ്പം ഫോർട്ടി കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇ എം ഐ വഴി ഫോർട്ടി കെ മാത്രം അടച്ചാൽ മതി നിങ്ങൾക്കതിന് ഒരു ആയിരം രൂപ പോലും എക്സ്ട്രാ വരില്ല അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട് ഇത് നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിന് മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള ഓഫറാണ് കേട്ടോ സാംസങ്ങിൻ്റെ ഫോണിന് മാത്രം എക്സ്ക്ലൂസീവായാലും പക്ഷേ വേറെയൊരു പ്രശ്നം ഉണ്ട് സാംസങ്ങ് ഒരു തേർട്ടി ഫൈ കേയോ ഫോർട്ടി കേയ്ക്കോ മുകളിൽ മാത്രമാണ് ഈ ഓഫർ അപ്ലൈ ആപ്ലിക്കബിൾ ആവുള്ളൂ അത് ഞാൻ പിന്നെ ആ ഇല്ല നമുക്കൊരു ഈ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു പതിനഞ്ച് ആ റേഞ്ചിലൊക്കെ എടുക്കുന്ന സാംസങ്ങ് ഫോണാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാകും കാരണം ഹാങ്ങാകും അങ്ങനത്തെ പ്രശനങ്ങൾ വരും നമുക്കൊരു ഒരു മോർ ദാൻ തേട്ടി കേ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല സാംസങ്ങ് ബെറ്റർ ഓപ്ഷൻ ആണ് ആ എന്നുവെച്ചാൽ ത്രീ ആ പൈസ അഫോർഡബിൾ ആണെങ്കിൽ പ്രശ്നമില്ല ഇന്ന് ഷോപ്പുകൾ ഓപ്പൺ ആണ് നിങ്ങളൊരു മൂന്ന് മണിക്ക് ശേഷം വന്നോളൂ നമുക്ക് വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ ഈ എം ഐ ആണെങ്കിൽ ജസ്റ്റ് ഒന്നും വേണ്ട ഒന്ന് നമുക്ക് ആധാറും ബാങ്ക് ഡീറ്റെയ്ൽസും ഒരു പാൻ കാർഡും മതി ജസ്റ്റ് മതി മതി ഓ ആയിക്കോട്ടെ നേരിട്ട് ഷോപ്പിലേക്ക് വരണം ഞാൻ ഷോപ്പിലുണ്ടാവും